നമ്മുടെ നാട്ടിൽ സംസ്ഥാനത്ത് ആദരിക്കപ്പെടുന്ന പ്രധാന മതനേതാക്കളായിട്ടെനിക്കറിയാവുന്ന രണ്ടാൾക്കാരെന്നു പറയുന്നത് ഒന്ന് വിശു വിശുദ്ധ ദൈവസഹായം പിന്നെ വിശുദ്ധൽഫോൻസാമ്മ ഇവർ രണ്ടു പേരും ആണ് കേരളത്തിൽ നിന്ന് വിശുദ്ധരായി അല്ലെങ്കിൽ മതനേതാക്കളായിട്ട് ആദരിക്കപ്പെടുന്ന സന്യാസിമാർ സന്യാസിമാർ എന്നു പറയാം അപ്പം ഇവർ ഇവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ യേശു ക്രിസ്തു എന്നൊരു വ്യക്തി അല്ലെങ്കിൽ യേശു ക്രിസ്തു എന്ന ദൈവം അല്ലെങ്കിൽ കർത്താവ് എന്നറിയപ്പെടുന്ന വ്യക്തിയിൽ നിന്നും വന്ന വചനങ്ങളും അദ്ദേഹത്തിൻ്റെ ഉത്ബോധനങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹത്തിനുവേണ്ടി സാക്ഷ്യം വഹിച്ചു കൊണ്ട് ജീവിച്ചവരാണിവർ രണ്ടുപേരും ഇവർ എന്നു പറയുക ഇവർ ഇവരുടെ സാധാരണ ആൾക്കാരിൽ നിന്നും സാധാരണ മനുഷ്യരിൽ നിന്നും ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും മറ്റുള്ളവർ പണത്തിൻ്റെയും സുഖത്തിൻ്റെയും പിന്നാലെ പോകുമ്പോൾ അതിലൊന്നിലും ആകൃഷ്ടയാകാതെ യേശു ക്രിസ്തു അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ വചനങ്ങൾ അതിലാകൃഷ്ടരായി അതിൽ കൂടുതൽ ഉദ്ബോധിതരായി മനുഷ്യരെ അതിൽ നിന്നും അല്ലെങ്കിൽ അവരുടെ ചുറ്റുമുള്ള ആൾക്കാരെ ആ വചനങ്ങളുപയോഗിച്ച് അല്ലെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ വചനങ്ങൾ ഉപയോഗിച്ച് കൂടുതൽ മത യേശു ക്രിസ്തുവിൻ്റെ വിശ്വാസത്തിലേക്ക് ക്രിസ്ത്യ വിശ്വാവാസത്തിലേക്കു നയിക്കുവാൻ ഇവർ കൂടുതൽ ശ്രമിച്ചിട്ടുണ്ട് ഇവരിൽ നിന്ന് എനിക്ക് പഠിക്കാൻ കഴിഞ്ഞ കാര്യം എന്താണെന്നു പറഞ്ഞു കഴിഞ്ഞാൽ അ ഒത്തിരി സഹനങ്ങളും ഒത്തിരി കഷ്ടതകൾക്കു ശേഷമാണ് അവരെ നമ്മളിന്ന് അപ്പോൾ സന്യാസിനിമാരായിട്ടും അല്ലെങ്കിൽ മതനേതാക്കളായിട്ട് ആദരിക്കുന്നത് ആ കഷ്ടപ്പാടുകൾക്കും ആ ബുദ്ധിമുട്ടുകൾക്കും ഒരു പ്രതിഫലം എന്നവണ്ണം നമ്മൾ നമ്മളെ അവരാദരിക്കുന്നു നം എന്ന് ക കരുതാൻ പറ്റില്ല എങ്കിലും ആ ഒരു ആദരണത്തിന് വേണ്ടിയല്ല അവരിതൊന്നും ചെയ്തത് മറിച്ച് അവർക്കുണ്ടായിരുന്ന യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം അല്ലെങ്കിൽ യേശുക്രിസ്തുവിലുള്ള ആ സ്നേഹം മറ്റുള്ളവരെ അറിയ്ക്കുക അവരെയാണ് സ്നേഹത്തിലോട്ട് ആകൃഷ്ടരാക്കുക യേശുക്രിസ്തു പഠിപ്പിച്ച കാര്യങ്ങൾ അതായത് സഹനം സ്നേഹം അങ്ങനെയുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ പാലിക്കുക എങ്ങനെ മ നമ്മുടെ കൂടെയുള്ളവരെ സ്നേഹിക്കാൻ പറ്റും അല്ലെങ്കിൽ ശത്രുക്കളായാൽപ്പോലും അവരെയെങ്ങനെ നമുക്ക് സ്നേഹിക്കാൻ പറ്റും ശത്രുതയില്ലാതെ അഹങ്കാരമില്ലാതെ അത്യാഗ്രഹങ്ങളില്ലാതെ ഒരു ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ഒരു മതനേതാവിനു വേണ്ടി അല്ലെങ്കിലെന്താ പറയുക ഒരു ആദരിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഒരു ഗുരുവായി കാണപ്പെടുന്ന യേശുക്രിസ്തുവിനുവേണ്ടി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്കുവേണ്ടി അദ്ദേഹത്തിൻ്റെ ജീവിതം പിന്തുടർന്ന് ഈ ലോകത്തിൽ മനുഷ്യർക്ക് നമ്മുടെ കൂടെയുള്ളവർക്ക് പ്രത്യേകിച്ച് കേരളം ജനതയ്ക്ക് അഭിമാനിക്കാമെന്ന വണ്ണം മതനേതാക്കളായി ആദരിക്കപ്പെടുന്നവരായി മാറിയവരാണ് അപ്പം എനിക്കവരിൽ നിന്ന് അവരെക്കാണുമ്പോളല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളറിയുമ്പോൾ അവരുടെ ജീവിതം പരിശോധിക്കുമ്പോൾ കിട്ടുന്ന ഏറ്റവും വലിയ എന്താ പറയുക ഉത്തേജനം അല്ലെങ്കിൽ പ്രോത്സാഹനമെന്നു പറയുന്നത് എൻ്റെ ജീവിതത്തിൽ എൻ്റെ കഷ്ടതകളോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ വരുമ്പോൾ അ ഒരു യേശു ക്രിസ്തുവിൻ്റെ വചനങ്ങളും അദ്ദേഹം പറഞ്ഞാൽ വാക്കുകളും ഉൾക്കൊണ്ടുകൊണ്ട് കൂടുതൽ എന്താ പറയുക സമാധാനത്തോടും സന്തോഷത്തോടും കൂടി ആ സഹനങ്ങളെ ഉൾക്കൊള്ളുവാനും അതിനെ കടന്നു വരുവാനും മറ്റുള്ള അതുപോലെ സാ സഹിക്കുന്ന അല്ലെങ്കിൽ അതുപോലെ കഷ്ടപ്പെടുന്നാൾക്കാർക്ക് ഒരു കൂട്ടായി ഒരു തണലായി നിന്ന് അവരെ ആശ്വസിപ്പിക്കുവാനും അവർക്ക് പറ്റുന്നത്ര സഹായങ്ങൾ നമുക്ക് ചെയ്തുകൊടുക്കുവാനും ഒരു നല്ല മാതൃകയായിട്ടാണ് എനിക്കിവരെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് അ മറിച്ച് ഒരു വിശുദ്ധീയ വിശുദ്ധ് വിശുദ്ധ ജീവിതത്തിൽ നമ്മൾ അവരുടെ ജീവിതം ഇന്നു പറയുമ്പോഴും അല്ലെങ്കിൽ ഇന്നല്ല ഇനിയെത്ര തലമുറകൾ വന്നാൽ പോലും അവരെല്ലാവരും ഓർക്കുന്നൊരു വ്യക്തികളായിട്ടാണ് അവരെ നമ്മൾ കണക്കു കൂട്ടുന്നത് സൊ നമ്മൾ അതുപോലെ ജീവിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അതുപോലെ ഒരു മറ്റുള്ളവർക്ക് മാതൃകയായിട്ട് മറ്റുള്ളവർക്ക് സഹായമായിട്ട് മറ്റുള്ളവരെ സ്നേഹിക്കുന്ന രീതിയിൽ പര സ്നേഹത്തോടുക്കൂടി ജീവിക്കുമ്പോൾ കലാകാലങ്ങൾ നമ്മളുടെ മരണശേഷം പോലും നമ്മളെ ഓർക്കാനും നമ്മളെക്കുറിച്ച് പറയുവാനും ഒത്തിരിയാൾക്കാരുണ്ടാകും നമ്മളെ ഓർത്തും അല്ലെങ്കിൽ നമ്മളെ കണ്ടുകൊണ്ട് നം നമ്മളെയനുകരിച്ചുകൊണ്ട് മറ്റുള്ളവരെ സഹായിക്കാനിറങ്ങിത്തിരിക്കുന്നവരുന്നുണ്ടാകും അപ്പോൾ എന്തു പറയാം എനിക്ക് ഈ രണ്ടു പേരുടെ ജീവിതത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ മോട്ടിവേഷൻ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഉ ഉത്സാഹം ലഭിച്ചതെന്തിനാണെന്നു വെച്ചുകഴിഞ്ഞാൽ എന്തു വിഷമങ്ങൾ വന്നാലും എന്ത് ബുദ്ധിമുട്ടുകൾ വന്നാലും ആത്മഹത്യ ചെയ്യാനോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുൻപിൽ കുറ്റപ്പെട് മറ്റുള്ളവരെയതിനുവേണ്ടി കുറ്റപ്പെടുത്താനോ എനിക്കു വന്ന സഹനങ്ങളെ സന്തോഷത്തോടെ സ്വീകരിച്ചു കൊണ്ട് അതെന്നെക്കൊണ്ടാകുന്ന വിധത്തിൽ കടന്നു വരാൻ കടന്നു വരാനുള്ള ഒരു ഊർജം എനിക്ക് ഇവരുടെ ജീവിതത്തിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടെന്നു തന്നെ പറയാം അതു കൊണ്ടു തന്നെ ഈ മതനേതാക്കൾ എനിക്ക് നല്ലൊരു മാതൃകയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്